ഞാൻ ജീവിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് എല്ലാ പത്ര മാധ്യമങ്ങളും അച്ചടിക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം മലയാള മനോരമ മാതൃഭൂമി മംഗളം തുടങ്ങിയ എല്ലാ പത്രങ്ങളും ദീപിക തുടങ്ങിയ എല്ലാ പത്രങ്ങളും അച്ചടിക്കുന്നത് ഈ കോട്ടയം ജില്ലയിലാണ് അതു മാത്രമല്ല തിരുവിതാംകൂർ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭാഗങ്ങൾ പകുതിയും ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ തുടങ്ങിയവയാണ് അതുകൊണ്ടുതന്നെ അച്ചടി ഭാഷയിലാണ് പലയിടത്തോട്ടും വാർത്തകളെത്തുന്നത് കൂടുതലും ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ഫോൺ ഇൻറ്റർനെറ്റ് ഇതുപോലെയുള്ള ഉപയോഗങ്ങൾ കാരണം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ചെറിയൊരു മൊബൈൽ ഫോണിൽ എല്ലാ വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കും കേൾക്കാൻ സാധിക്കും എല്ലാ ദിവസങ്ങളിലെ പത്ര വായന എല്ലാ ദിവസങ്ങളിലും നമുക്ക് പത്രവും ലഭിക്കും അതുകൊണ്ടുതന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പല സ്രോതസ്സുകൾ അല്ലെങ്കിൽ പല ഉറവിടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാർത്തകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും ദിനംപ്രതി അറിയാൻ സാധിക്കും